ഹലോ ജോസേട്ടനാണോ ജോസേട്ടനാണോ ഓക്കെ ഓക്കെ ഓക്കെ ഈ സിനിമായിലൊക്കെ ഉള്ള ജോസേട്ടൻ ഓഹ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ജോസേട്ടാ ആണോ ഇപ്പോൾ എവിടാ ആ ദീപകാ ദീപക് ഞാൻ എനിക്ക് നാമസ്കാരമുണ്ട് ഞാൻ ആകെ ഇങ്ങനെ ടെൻസ്ഡ് ആ കാര്യം ജോസേട്ടനെ കിട്ടുക എന്ന് പറഞ്ഞാലുണ്ടല്ലോ അത് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല ജോസേട്ടാ ആ ഇപ്പോൾ വല്ലതും ഫിലിം ഷൂട്ടിംഗ് വല്ലതും ആണോ ആണോ ഓ ആ ബ്രേക്കിന് തന്നെ ഞാൻ കുറെ നേരമായി ജോസേട്ടാ ഞാൻ കുറെ നേരമായി ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു ഇങ്ങനെ അപ്പം ബെല്ല് ഇപ്പോഴാ ഒന്ന് ജസ്റ്റ് ഒരു റിംഗ് കേട്ടപ്പോൾ ഞാൻ എനിക്കാ എനിക്കങ്ങ് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല അതുപോലെ ഞാൻ സന്തോഷമാ കേട്ടോ കാര്യം ഞാൻ ആണെങ്കിൽ പല ഇൻറ്റർവ്യുവും ജോസേട്ടൻ്റെ ഞാൻ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് പക്ഷെ എങ്ങനെ ജോസേട്ടനുമായിട്ട് ഒന്ന് നേരിട്ടൊന്ന് സംസാരിക്കാൻ കിട്ടുക എന്ന് പറഞ്ഞാലത് വല്ലാത്തൊരു എനിക്കൊരു എനിക്കൊന്ന് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല ജോസേട്ടാ അതല്ല ജോസേട്ടാ ജോസേട്ടൻ്റെ ആ അഭിനയിക്കുന്ന ആ ഇതുണ്ടല്ലോ നമുക്ക് ശരിക്കും ജീവിക്കുന്ന പോലെ ആയിട്ടാ എനിക്ക് തോന്നിയിട്ടുള്ളത് ഭയങ്കര എനിക്ക് ഞാൻ ഓരോ ഷോട്ട് കാണുമ്പോഴുവേ ഇങ്ങനെ ഭയങ്കര രസകരമായിട്ടാ ഭയങ്കര ഒരു പ്രസൻറ്റ് ചെയ്യുന്ന സ്റ്റൈല് അത് പല എത്രയൊക്കെ കഥാപാത്രങ്ങളെ ജോസേട്ടൻ അഭിനയിച്ചിട്ടുണ്ടോ അതെല്ലാം തന്നെ ഓരോരോ പുതിയ പുതിയ ഒരു ഫീൽ ആണ് നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ ഏതാ ഏതാ ജോസേട്ടാ ഇനി പുതിയതായിട്ട് ഏതാ സിനിമയാ ഓഹ് അത് പേര് തന്നെ ഒരു ഭയങ്കര രസമാണെ അപ്പോൾ അത് അ പക്ഷെ ഇതുവരെ നമുക്ക് മലയാളത്തിൽ അങ്ങനെയൊരു ഫിലിം ഇതുവരെ അങ്ങനെ ആരും തന്നെ ചെയ്തതായിട്ട് തോന്നുന്നില്ല

ഓഹ് എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതെങ്ങനെ എങ്ങനെ ആ അവർക്ക് റോൾ ഒക്കെ എങ്ങനെ എടുക്കാൻ പറ്റും തീർച്ചയായും ഞാനത് കണ്ടിരിക്കും കാര്യം ഞാൻ മാത്രമല്ല എൻ്റെ കൂട്ടുകാരെയും എല്ലാവരെയും കൂടെ ഞാൻ വിളിച്ചുകൊണ്ടാ വരുന്നത് ഇനി അത് എനിക്ക് ഈ ഒരു രക്ഷയുമില്ല ജോസേട്ടൻ്റെ ഒരു സിനിമ വിജയിപ്പിക്കുക എന്നുള്ളത് എൻ്റെയും കൂടെ ഒരു ആവശ്യമാ കാര്യം അത് അല്ലെങ്കിൽ മുന്നോട്ട് മുന്നോട്ട് പോകുംതോറും നമുക്ക് ഇനി ഇനിയും അടുത്ത പുതിയ പുതിയ കഥാപാത്രങ്ങളെ ചെയ്യണ്ടതായിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ എപ്പഴും ആണെങ്കിൽ പഴയ ആൾക്കാരെ മാത്രം നമ്മൾ ആശ്രയിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവും ഇല്ലല്ലോ ആ പുതിയ പുതിയ പുതിയ പുതിയ കഥാപാത്രങ്ങൾ വരണം കാലത്തിനനുസരിച്ചുള്ള പുതിയ കഥകൾ വരണം അത് പുതിയ മാറ്റങ്ങൾ ഉണ്ടാകണം അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഇനി എനിക്ക് ഞാൻ ഇങ്ങനെ കേട്ടതെ ജോസേട്ടൻ നേരത്തെ ഇങ്ങനെ ഒരു മിലിറ്ററി ഒരു പ്രൊഫെഷനൽ ആയിരുന്നല്ലോ അപ്പം അതും ഇതും തമ്മിൽ എങ്ങനെയാ രണ്ടും കൂടെ എങ്ങനെയാ കൊണ്ടുപോവാൻ പറ്റുക അല്ല അത് ഷോട്ട് സർവീസ് കമ്മീഷൻ ആയിരുന്നോ അതോ ഇത് എങ്ങനെയാ അത് തുഭേദർ അല്ല നമ്മൾ നേരത്തെ നേരത്തെ ഞാൻ കെട്ടിരിക്കുന്നതെ ഇതിൻ്റെ അകത്ത് ആണെങ്കിൽ തന്നെ നമുക്കൊരു ഒരു ഷോട്ട് ടേമിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു എഴു വർഷം എട്ട് വർഷം ആ രീതിയിലുള്ളതാണോ അതോ പതിനഞ്ച് വർഷം സർവീസിൽ ഉണ്ടായിരുന്നോ എങ്ങനെയാ ഉള്ളത് എനിക്കൊന്ന്

അപ്പോൾ ഈ ഇതിനോട് താല്പര്യം ഉള്ളത് കൊണ്ടായിരിക്കും അല്ലേ അങ്ങനെ പെട്ടെന്ന് വി ആർ എസ് ഒക്കെ എടുത്തത്

സാറേ ഞാൻ പിന്നെ ഒരു കാര്യം സാർ അന്ന് പറഞ്ഞിരുന്നല്ലോ ഒരു വളരെ കുറച്ച് സമയെ സാറിന് ഉള്ളു എനിക്ക് ബ്രേക്കിൻ്റെ സമയത്താണ് എൻ്റെ കോള് എടുത്തത് എന്ന് മനസ്സിലായി ഞാനെ ഒന്ന് ഞാനൊന്ന് ഇപ്പോൾ ഒന്ന് ഞാൻ സാറിൻ്റെ അനുവാദത്തോട് കൂടി ഞാനൊന്ന് അല്ലെങ്കിൽ സാറിന് കാര്യമെ അടുത്ത ഷോട്ട് എടുക്കേണ്ടതായിട്ട് ഇല്ലേ അപ്പം അതുകൊണ്ട് ഞാനൊന്ന് നിർത്തിക്കോട്ടെ പക്ഷെ ഞാൻ ഒരു കാര്യം ചെയ്യും ഞാൻ ഇനിയും സാറിനെ വിളിക്കും അപ്പം എനിക്ക് സാറിനെ അതു പോലെ ഡൈ ഹാർഡ് ഫാൻ ആണ് അപ്പം അതുകൊണ്ട് ആണെ ഓക്കെ ഓക്കെ താങ്ക് യൂ സർ താങ്ക് യൂ സർ താങ്ക് യൂ ഓക്കെ ഓക്കെ താങ്ക് യൂ സർ താങ്ക് യൂ സർ താങ്ക് യൂ സർ താങ്ക് യൂ സർ